ആ അതെ ആ അത് തന്നെയാണ് അതെ അതെ ആ ഓക്കെ ആ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കോട്ടേഴ്സാണോ വേണ്ടത് അതോ വീട് ഒറ്റ വീടായിട്ടാണോ വേണ്ടത് എങ്ങനെയാണ് വേണ്ടത്

ആ ഓക്കെ

ഫുൾ ഫർണിഷ് ആ ഉണ്ടാവും എങ്ങനെയാണ് പിന്നെ രണ്ട് റൂമും ഒരു കിച്ചണും പിന്നെ ബാത്റൂമും അങ്ങിനെ മതിയോ അല്ലേ അറ്റാച്ച്ഡ് ബെഡ്റൂമും ആ എ എത്ര വരെ ബഡ്ജറ്റ് പോവാം

ഓക്കെ ആ അപ്പോൾ വീടുണ്ടാവും വീടുണ്ടാവും ഫുൾ ഫർണിഷ്ഡ് ആണല്ലേ വേണ്ടത് ആ ഓക്കെ

ആ ഓക്കെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെവിടെയാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എവിടെ ആയിട്ടാണ് വേണ്ടത്

ആ ഓക്കെ ആ അതിന്റടുത്തായിട്ട് ആ ഓക്കെ ഞാൻ നോക്കീട്ട് പറയാം ആ ആ ഞാൻ വിളിക്കാം ആ വിളിക്കാം നിങ്ങൾ എപ്പോഴാണ് വരാനുദേശിക്കുന്നത് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഞാൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് അഡ്വാൻസ് വേണം പിന്നെ മന്ത്ലി റെൻറും ആ ഓക്കെ ആ ശരി